ചിത്രം വരച്ച് തുടങ്ങുന്നവർക്കും തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും എനിക്ക് നൽകുവാനുള്ള ഉപദേശം എന്ന് പറയുന്നത് ഇതിനെ ഒരു കലാ മേന്മയോടെ കലാ മൂല്യത്തോടെ തിരിച്ചറിയുക ചിത്രം എന്ന് പറയുന്നത് വരയ്ക്കുവാൻ ഉള്ളതാണ് ഓരോ ചിത്രങ്ങളും ജീവിതമാകുമ്പോഴാണ് യാഥാർഥ്യത ഉണ്ടാകുന്നത് യാഥാർഥ്യ ബോധത്തോടെ യഥാർത്ഥ ചിത്രങ്ങൾക്കും അപ്പുറമായി ഒരു ഒരു വസ്തുവിനെ വരച്ചെടുക്കുമ്പോഴാണ് ആ ചിത്രത്തിന് പൂർണതയുണ്ടാകുന്നത് ചിത്രം വരയ്ക്കുന്നവർക്ക് നൽകുവാനുള്ള ഉപദേശം എന്ന് പറയുന്നത് ഞാൻ വലിയ ഒരു ചിത്രം വരക്കാരനാണ് എന്നുള്ള ബോധ്യത്തോടെ ഒരിക്കലും വരയ്ക്കരുത് കാരണം പല പാളിച്ചകളിൽ നിന്നുമാണ് ഒരു ചിത്രം വരക്കാരൻ രൂപപ്പെടുന്നത് ഉദാഹരണമായി മനോഹരമാവുന്ന ഈ ഭൂമിയുടെ ചിത്രം അത് വരയ്ക്കുവാൻ അതിൽ നാം തിരഞ്ഞെടുക്കുന്നതായ നിറങ്ങൾ അതുപോലെ തിരഞ്ഞെടുക്കുന്നതായ ആകൃതികൾ ഈ ഭൂമിയിലെ പച്ചപ്പ് പ്രകൃതി ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് കൊണ്ട് മനുഷ്യമനസ്സിനെ അതിശയിപ്പിക്കുന്ന രീതിയിലാകണം ഒരു ചിത്രകാരൻ പടങ്ങൾ വരയ്ക്കേണ്ടത് അതുപോലെ പാശ്ചാത്യ നാടുകളിൽ ചിത്രം വരക്കാരൻ റോഡുകളിലും മറ്റും വലിയ ഗർത്തങ്ങൾ ചിത്രങ്ങളായി വരയ്ക്കാറുണ്ട് ദൂരെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് വലിയ ഒരു ഗർത്തമായി തോന്നിയേക്കാം എന്നാൽ അടുത്തു വന്ന് കഴിയുമ്പോഴാണ് ഇത് വെറും ഒരു ചിത്രമാണ് എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാകുന്നത് അങ്ങനെ യാഥാർഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം നമ്മുടെ ചിത്രങ്ങൾ അതുപോലെ ഒരു ചിത്രം വരക്കാരൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് താൻ ഉപയോഗിക്കുന്ന ഉപകരണമാവുന്ന പെൻസിൽ അഥവാ എറൈസർ അതുപോലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടിയ പെൻസിലുകൾ തന്നെ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക അതിൽ ബോൾഡായതും ബോൾഡ് കുറഞ്ഞവയുമാകുന്ന പെൻസിലുകളുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചിത്രങ്ങൾക്ക് അനുയോജ്യമാകുന്ന ഫോണ്ടുകൾ തിരഞ്ഞെടുക്കുവാനും നമുക്ക് സാധ്യമാകണം നമ്മുടെ ജീവിത തലങ്ങളിൽ ചിത്രത്തിന് വളരെ ഏറെ പ്രാധാന്യമുണ്ട് ഉദാഹരണമായി ഒരു വ്യക്തിയുടെ പിതാവ് മരിച്ചു പോകുന്നു ആ വ്യക്തിയ്ക്ക് തൻ്റെ പിതാവിനെ ഈ ലോകത്ത് പിന്നെ കാണുവാൻ ഒരു അവസരവും ലഭിക്കുകയില്ല മൺമറഞ്ഞ് പോയല്ലോ ആ വ്യക്തിയ്ക്ക് തൻ്റെ പിതാവിനെ സ്മരിക്കുവാൻ ചിത്രത്തിലൂടെയാണ് സാധ്യമാകുന്നത് ആ ചിത്രത്തിലൂടെ കലാകാരൻ വാർത്തെടുക്കുന്ന ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ രൂപം മറ്റു വ്യക്തികൾക്ക് അവരുടെ ജീവിതം തന്നെയായി മാറുമ്പോഴാണ് എഴുത്തുകാരൻ അഥവാ ചിത്രം വരക്കാരൻ അഥവാ തങ്ങളുടെ കഴിവ് തിരിച്ചറിയുന്നത് എന്നുള്ള ബോധ്യവും സംഭവിക്കുന്നത് ഓരോ ചിത്രങ്ങളും യാഥാർഥ്യ ബോധമുള്ളവയാകുമ്പോൾ അത് വരക്കുന്നവനും ആ യാഥാർഥ്യത്തിലേയ്ക്ക് കടക്കുന്നു അതുപോലെ ചില ചിത്രങ്ങൾ നമ്മെ കാൽപനികതയിലേയ്ക്ക് നയിക്കുന്നതാണ് ആ ചിത്രങ്ങൾ കാണുമ്പോൾ നാം ഈ ലോകത്തല്ലെന്നും ഈ ലോകത്തിലെ ഒരത്ഭുതമായി ആ ചിത്രത്തെ നമുക്ക് തോന്നിയേക്കാം അത് ഒരു ചിത്രം വരക്കാരൻ്റെ വിരൽ തുമ്പിലെ വിസ്മയമാണ് ഈ ലോകത്തെ മുഴുവൻ ഒരു ചിത്രം വരക്കാരൻ്റെ വിരലിലൂടെ വിരൽ തുമ്പിലൂടെ നമുക്ക് പ്രത്യക്ഷമാക്കുവാൻ സാധിക്കും ശരിക്കും ഒരു പടം വരയ്ക്കുന്ന വ്യക്തിയുടെ വിരൽ തുമ്പിൽ നിന്നാണ് പല യാഥാർഥ്യ ഭാവുഗത്വങ്ങളും രൂപം കൊള്ളുന്നത് യാഥാർഥ്യ ബോധം ഉണ്ടാകുമ്പോഴാണ് ചിത്രത്തിന് അതിൻ്റെ പരിപൂർണത ഉണ്ടാവുക തങ്ങളുടെ കഴിവിന് ഏറ്റവും അനുസൃതമാകുന്ന രീതിയിൽ അഭിനന്ദനങ്ങൾ ലഭിക്കുന്നത് ആ ചിത്രം അമൂല്യമാകുമ്പോഴാണ് ചില ചിത്രങ്ങൾ ചിലരുടെ ജീവിതങ്ങളിൽ ചില അമൂല്യ വസ്തുക്കളായി മാറ്റപ്പെടാറുണ്ട് അവരുടെ ജീവിതം തന്നെ ആ ചിത്രത്തിലേയ്ക്ക് വരച്ച് ചേർക്കുമ്പോഴാണ് ആ ചിത്രത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഒരു ചിത്രകാരൻ ആകുവാൻ ആഗ്രഹിക്കുന്ന ഓരോ യുവ തലമുറയ്ക്കും എനിക്ക് നൽകുവാനുള്ള ഉപദേശം എന്ന് പറയുന്നത് യാഥാർഥ്യ ബോധത്തോടെ വരയ്ക്കുകയും മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കാത്തത് ഒരു ചിത്രകാരനിലൂടെ കണ്ണിലൂടെ കണ്ട് അവയെ വ്യക്തമായി തൻ്റെ പേപ്പറിലും തൻ്റെ കൈകൾ കൊണ്ട് വരച്ചും രൂപപ്പെടുത്തുമ്പോഴാണ് ഒരു ചിത്രകാരൻ അവൻ്റെ പരിപൂർണതയിൽ എത്തുന്നത്